ആ ഹലോ ഏ എം കൊപ്രാ മില്ലല്ലേ അപ്പം എനിക്ക് കുറച്ച് തേങ്ങയുണ്ടായിന് ആട്ടാൻ അപ്പം അതിൻ്റെ ഇതറിയാൻ വേണ്ടി വിളിച്ചതാണ് ആ ഇല്ല അപ്പം ആ ഇങ്ങളോട് ചോദിച്ചിട്ട് ഇനിയിപ്പം കൊപ്രാ ആക്കണമെങ്കിൽ അങ്ങനെ ആക്കാം എന്ന് കരുതിയിട്ടാണ് വിളിച്ചത്

ആ ആ പിന്നെ കേടുവരാതെ ഇരിക്കാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ കേടുവരാതിരിക്കാൻ എന്തെങ്കിലുമൊക്കെ മായം ചേർക്കുന്നുണ്ടോ ആ ആ ഇപ്പം എൻ്റെ കയ്യിലുള്ളത് ഒരു മുപ്പത് കിലോ ആണ് ആ എത്ര ദിവസം എടുക്കും ആ ആ ആ ആ അപ്പോൾ എപ്പളാണ് കട തുറക്കുക ആ അപ്പം എന്നാൽ ഞാൻ നാളെ രാവിലെ വരാം ആ എന്നാൽ ശരി